ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററൊക്കെ നമ്മള്ക്ക് വാർത്തകൾ ലഭിക്കുന്നതിനുള്ള മാധ്യമമാണ് പക്ഷേ നമ്മളുടെ കുടുംബാംഗങ്ങളില് കൂടുതലാൾക്കാരും പിന്നേ ഹസ്ബൻറ്റുമൊക്കെ വാർത്ത കേള്ക്കുന്നത് ഫേസ്ബുക്കിലെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റാ ഫേസ്ബുക്കിലൂടെയൊക്കെയാണ് കുട്ടികൾക്കും അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വിശ്വാസമാണോ എന്നു ചോദിച്ചാല് നല്ല രീതിയില് നമ്മള്ക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല പല ചാനലുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമ്മള്ക്ക് തന്നെ ഒരു കൺഫ്യൂഷനായിരിക്കും പക്ഷേ പിന്നെ സാങ്കേതിക വിദ്യ ഏറ്റവും ഒരു പ്രയോജനമാണ് പിന്നെ ആധുനിക ലോകത്തിലും നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ ഒത്തിരി പ്രയോജനമുണ്ട് അതുപോലെ ദോഷവുമുണ്ട് നമ്മള് ഏതാണ് തെരഞ്ഞെടുക്കുന്നേന്നു വച്ചാല് നമ്മുടെ രുചി അനുസരിച്ചായിരിക്കും പഠനത്തിനും പഠനത്തിനും അതുപോലെ പഠനത്തിനായിട്ട് ദൂരങ്ങളിലേക്ക് പോയ കുട്ടികളെയൊക്കെ ആൾക്കാരെയൊക്കെയും നമുക്ക് വിഡിയോ വീഡിയോക്കെ ചെയ്ത് ഫോൺ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണാൻ സാധിക്കും പക്ഷേ ഒത്തിരി പിന്നെ കുടു ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് എന്തൊരു കാര്യം അറിയണമെങ്കില്ത്തന്നെയും അത് ഉപയോ ഉപയോഗിക്കാൻ സാധിക്കും അതൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പക്ഷേ വിശ്വാസത്തെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല അത് നമ്മള്ക്ക് ഈയൊരു ചിന്താഗതി ഉള്ളതു കൊണ്ടായിരിക്കാം ഏതാ എല്ലാവരെയും അത് കു കുഞ്ഞുങ്ങള് തൊട്ട് വലിയവര് വരെയും അവർക്ക് ഏത് തെരഞ്ഞെടുക്കാൻ നന്മയാണെന്നോ തിന്മയാണെന്നോ എതാണെന്നുള്ളൊരു ബോധ്യം ശരിയായി ലഭിക്കുന്നില്ല പക്ഷേ മറ്റു അ ആധുനിക ലോകത്തില് ഫേസ്ബുക്കും നമുക്ക് ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ ആവശ്യമാണ് അത് ഇപ്പോള്ത്തന്നെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും എ ഐ എന്നുള്ള ഒരു ഇതില് വച്ചാണ് ഇപ്പോള് എന്ത് ചോദിച്ചാലും നമ്മള്ക്ക് തന്നെ ആപ്പെടുത്ത് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോഴത് ഒരു കറക്റ്റായിട്ടുള്ള കര വേണം എല്ലാ കാര്യങ്ങളും വേണം പഴയ കാലത്തിനേക്കാളൊക്കെ പുതിയ കാലത്തില് കു കുഞ്ഞുങ്ങൾക്ക് മുതല് എല്ലാ കാര്യങ്ങളും പഴയ തലമുറയിലെ തലമുറ ആഗ്രഹിക്കുന്ന പോലല്ല അവരുടെ ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ ന്യൂ ജനറേഷന് ഇതൊക്കെ ഉപയോഗമാണ് ഈ കൊറോണയുടെയൊക്കെ സമയത്ത് യു ട്യൂബും ഫോണൊക്കെ ഒത്തിരി ഉപയോഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് പക്ഷെ ഒരുപാട് ആ കുട്ടി ഒരുപാട് ആളുകള് കുട്ടികളും മുതിർന്നവരും ഒക്കെ തെറ്റിപ്പോകുന്നുമുണ്ട് അത് പല രീതിയിലത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പക്ഷെ വാർത്തയനുസരിച്ച് വാർത്തയാണെങ്കില് വാർത്ത നമുക്ക് ഏതു വാർത്തകളെയും കേ കേൾക്കാനുള്ള ഒരു ചാന ചാനല് തന്നെയാണ് വാർത്ത കേൾക്കുന്നുണ്ട് അത് നമ്മള്ക്ക് ഉപയോഗിക്കാം അതുപോലെ നമുക്കറിയാ ത്ത കാര്യങ്ങള് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളാണെങ്കിലും ഈ ഫോണും കൊണ്ടൊക്കെ ഉപയോഗമുണ്ട് അത് ഫേസ്ബുക്കൊക്കെ നമ്മള്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ അത് ദുരുപയോഗപ്പെടുത്തരുത് മാധ്യമങ്ങൾക്ക് പാ അത് മാധ്യമങ്ങളും അത് വിശ്വാസപരമായിട്ട് ചെയ്യുന്നതല്ല താഴെ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഇപ്പോള് ടി വി ആയിട്ട് പത്രമായിട്ട് വരുത്തുന്നുണ്ടെങ്കില്ത്തന്നെയും അതിനാക്കെ അത് വലുതായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല അവരൊക്കെ അവരുടെ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഒക്കെ മീഡിയയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് അതൊക്കെ ഒരു നല്ല പ്രയോജനമാണ് അത് പിന്നെ അത് നമുക്ക് തെരഞ്ഞെടുത്ത് തെരഞ്ഞെടുക്കുന്നെ നമ്മടെ ചോയ്സാണ് അതിനെക്കുറിച്ച് ശരിക്കും അവരും കൂടെ നല്ല രീതിയിലത് ചെയ്തുതരാനായിട്ട് ബാധ്യസ്ഥരാണ് ഒന്നിച്ചുള്ളൊരു യോജിപ്പ് ഓരോ ചാനലുകളും ചെ ചെയ്യുമ്പോള് കറക്റ്റായിട്ടുള്ളത് ഇപ്പോള് അവർക്ക് ച് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും അത് ദുരുപയോഗപ്പെടുത്താതെ എല്ലാവരും ഉപയോഗിക്കണം